ഇപ്പോൾ ഇന്ത്യയില് ഒരുപാട് തൊഴിലവസരങ്ങളുണ്ടെങ്കിലും കൂടുതലും എന്താ പറയുക വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ വെച്ചിട്ടാണ് കൂടുതൽ ആൾക്കാർക്കും ജോലിയും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നത് അപ്പോൾ വലിയൊരു ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് തോന്നിട്ടുള്ളത് കാരണം എന്താ പറയുക ഇപ്പോൾ പണ്ട് ഇപ്പോൾ ഒരുവിധം എന്താ പറയുക ഒരു പത്ത് മുപ്പത് വയസ്സിനു മുകളിലേക്കുള്ളവർക്ക് കൂടുതൽ ആൾക്കാർക്കും എന്താ പറയുക ജോലിയും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ ബുദ്ധിമുട്ടാണ് കാരണം അവർക്കൊന്നും എന്താ പറയുക പണ്ടത്തെ അത്ര വിദ്യാഭ്യാസത്തിൻ്റെ യോഗ്യതയൊക്കെ വെച്ച് ഇപ്പോൾ ജോലി കിട്ടണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തന്നെയാണിപ്പോൾ ആ ഒരു ഏജിലുള്ളവരൊക്കെ നേരിടുന്നത് പിന്നെ ഇന്ത്യയില് തൊഴിലവസരങ്ങൾക്കുള്ള ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ പകുതി ആൾക്കാർക്കും നേരിടാൻ എന്താ പറയുക ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ളത് തന്നെയാണ് കാരണം തൊഴിലവസരത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസയോഗ്യതയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആൾക്കാര് നേരിടുന്നുണ്ട് പിന്നെ പൊതുവെയെന്നു പറയുമ്പോൾ എന്താ പറയുക പാവപ്പെട്ട ജനങ്ങൾക്ക് എന്താ പറയുക ഈ ചെറിയ കൂലിക്കൊക്കെയാണ് ജോലിക്ക് പോകേണ്ടി വരുന്നത് കാരണം അവര് ഉദ്ദേശിച്ച അവരുടെ വരുമാനമൊന്നും അവർക്ക് ചിലപ്പോൾ വീട്ടിലേക്ക് കറക്റ്റ് കിട്ടിക്കോളണമെന്നില്ല അവരുടെ വരുമാനയോഗ്യതയൊക്കെ ഭയങ്കര കുറവ് വരുമാനമൊക്കെ ഭയങ്കര കുറവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം അതൊരു വലിയ ബുദ്ധിട്ടായിട്ട് തന്നെയാണ് ആൾക്കാര് നേരിടുന്നത് പിന്നെയെന്താ പറയുക കൂടുതലും തൊഴിലവസരങ്ങളൊക്കെ കിട്ടണമെങ്കിൽ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നേരിടുന്നുണ്ട് ഇന്ത്യയിൽ സാലറി ബേസിൽത്തന്നെ വലിയ വ്യത്യാസം വ്യത്യാസമൊക്കെ കാണുന്നുണ്ട് കാരണം സാലറിയൊക്കെ കുറവായതുകൊണ്ടു തന്നെ ആൾക്കാര് ഭയങ്കര ബുദ്ധിമുട്ടുന്നുണ്ട്